ഞങ്ങളുടെ കുടുംബത്തിന് ഒരു ദിവസം ഉണ്ടാക്കുന്ന ആരോഗ്യപൂര്ണ്ണമായ കുറച്ച് ഞാന് പറയാന് പോകുന്നത് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു ഗ്ലാസ് ചായയോ കാപ്പിയോ ഇഷ്ടമുള്ളവർക്കു കൊടുക്കും അതു കഴിക്കും പാല് വേണ്ടിയവര്ക്ക് പാല് കൊടുക്കും അതു കഴിഞ്ഞൊരു എട്ടുമണി ഒൻപത് മണിയുടെ ഉള്ളിൽ ബ്രേക്ക്ബാസ്റ്റ് രാവിലത്തെ പ്രഭാത ഭക്ഷണമെന്നു പറയും പ്രഭാത ഭക്ഷണത്തിന് കൊടുക്കുന്നത് ഇഡലി സാമ്പാർ ചട്നിയൊക്കെ ഉണ്ടാക്കി അതിലൂടെ വടയുണ്ടാക്കും അതു കൊടുക്കും അതു ചില ദിവസങ്ങളില് പുട്ടും കടലക്കറിയും ഉണ്ടാക്കും ചിലത് പിന്നൊരു ദിവസമാണെങ്കിൽ ഞങ്ങളപ്പം അപ്പവും ഇസ്റ്റൂവും ഉണ്ടാക്കും ഇസ്റ്റൂവെന്നാൽ ഉരുളക്കിഴങ്ങും സവോളയും പിന്നെ ക്യാരറ്റുമൊക്കെ ഇട്ട് തേങ്ങാപ്പാലൊഴിച്ച് അങ്ങ അങ്ങനെയൊരു കറി ഇസ്റ്റൂ അതും കൂടി കൂട്ടിയിട്ടെ കൊടുക്കും പിന്നെ ചപ്പാത്തി ഇസ്റ്റൂ കൊടുക്കും അങ്ങനെ ആണ് ഉച്ചക്ക് ഉച്ച സ പത്ത് മണി ഒരു പത്ത് പതിനൊന്ന് മണി ആകുമ്പോഴേക്കും തണുത്ത ഒരു ജ്യൂസ് കൊടുക്കും തണുത്ത ജ്യൂസെന്നു പറഞ്ഞാൽ അതിനു ബീറ്റ്റൂട്ട് ക്യാരറ്റ് മുന്തിരി ആപ്പിൾ ഇതെല്ലാം കൂടി അടിച്ചിട്ട് ഒരു എ ബി സി ജ്യൂസെന്നു പറയും ഇതു നല്ലതാണ് ആരോഗ്യത്തിനേറ്റവും നല്ല ഒരു ജ്യൂസാണിത് കുട്ടികള്ക്കും മുതിര്ന്നവര്ക്കും ഒക്കെ ഒരു പത്തു മണി പതിനൊന്ന് മണിയാകുമ്പോൾ അതവര്ക്കുണ്ടാക്കി കൊടുക്കും അത് ചില ദിവസങ്ങളില് കൈതച്ചക്കയായിരിക്കും അടിക്കുന്നത് ചില ദിവസം കൈത മുന്തിരി ജ്യുസുണ്ടാക്കും അല്ലെങ്കില് ആപ്പിൾ ജ്യുസടിച്ചു കൊടുക്കും പിന്നെ ഉച്ചത്തേക്കത്തെ ലഞ്ചിന്റെ ടൈം പന്ത്ര ഒരു മണി പന്ത്രണ്ട് ടു ഒരു മണി വരെ അതിനുളളിൽ കുറച്ചു ചോറ് കുറച്ച് പച്ചക്കറി എന്തെങ്കിലും ഉണ്ടായി ഇലക്കറികളും ആ കൂട്ടത്തിൽ യു ഉപയോഗിക്കും ഇലക്കറിയെന്നു പറഞ്ഞാൽ മുന്തിരിയുടെ ആലം ല്ല് മുന്തിരി പോകട്ടെ സോറി മുരിങ്ങയില കൊണ്ട് ഒരു തോരനുണ്ടാക്കും പിന്നെ ചീര കൊണ്ട് തോരനുണ്ടാക്കും ചീര ഇല അതിനായിട്ട് ഒത്തിരി ഞങ്ങൾ നട്ടു വളര്ത്താറുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ത്തന്നെ ചീരയുണ്ട് ക ന്നെ പല സൈസ് ചീരകളുണ്ട് മുരിങ്ങ മുരിങ്ങയുടെ മരം തന്നെ ഞങ്ങൾ നട്ട് പിടിപ്പിക്കും വീട്ടിലൂടെയെല്ലാം കാരണം അതിന്റെ ഇല ഒടിച്ച് പിന്നെ തോരന് വെച്ച് കഴിക്കുന്നത് കണ്ണിനും ആരോഗ്യത്തിനും നല്ല മുടി വളരാനുമൊക്കെ എറ്റവും നല്ലതാണ് പിന്നെ ഞങ്ങൾ ചിക്കന് അല്ലെങ്കിൽ ബീഫോ എന്തെങ്കിലും അതിന്റെ കൂട്ടത്തിലുണ്ടാക്കും ബീഫ് കറിയായിട്ടും വെക്കും ചിലപ്പോളത് വരട്ടിയും വെക്കും പിന്നെ ഞങ്ങൾ ഈ പുറത്തു നിന്ന് വാങ്ങുന്ന ഫുട്സൊന്നും പിള്ളേര്ക്ക് വാങ്ങി കൊടുക്കുകയില്ല ഇത് ഈ മ ബ്രോസ്റ്റ് ബിരിയാണി ബിരിയാണി പിന്നെ പുറത്ത് കടകളില് കിട്ടുന്ന കെമിക്കലുള്ള യാതൊരു ഫുഡ്ഡും ഞങ്ങൾ വാങ്ങിക്കൊടുക്കാറില്ല അറബി ഫുഡ്ഡുകളൊക്കെ എല്ലാം ഞങ്ങളുടെ അവിടെ ഇഷ്ടംപോലെ കിട്ടും അത് മക്കളെ അതിൽ നിന്നെല്ലാം പിന്ത്തിരിപ്പിക്കുകയാണ് നല്ല ചോറും നല്ല നാടന് കറികളും ഉണ്ടാക്കിയിട്ട് കുട്ടികള്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഉച്ചസമയത്ത് അതിന്റെ കൂട്ടത്തിൽ കുറച്ച് പരിപ്പും മത്തങ്ങയൂടെ കറി വെക്കാം അല്ലെങ്കിൽ പരിപ്പും കുമ്പളങ്ങയും കൂടി ഞങ്ങളൊരു കറിയുണ്ടാക്കും പരിപ്പും കുമ്പളങ്ങ ഇട്ടൊരു കറിയുണ്ടാക്കും പിന്നെ അതിൻ്റെ കൂടെ തോരനും ചെറുപയർ തോരന് വെയ്ക്കും ക്യാ ബീറ്റ്റൂട്ട് മാത്ര അരിഞ്ഞിട്ട് തോരന് വെച്ച് ഉപയോഗിക്കും ബീറ്റ്റൂട്ടും ക്യാരറ്റും ഭക്ഷണത്തത് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഏറ്റവും നല്ല സാധനമാണ് പിന്നെ ഒഴിച്ച് കൂടാന് പറ്റാത്തതാണ് മലയാളികള്ക്ക് ഈ പാവയ്ക്കയെന്നു പറയുന്നത് പാവയ്ക്ക ഇഷ്ടമുള്ളവരൊക്കെ ഇഷ്ടമുള്ളവരാണെ അവര്ക്ക് അതു കൊണ്ടൊരു തോരന് വെച്ചു കൊടുക്കും പിന്നെ മോര് കറിയുണ്ടാക്കും അതായത് തൈര് ഉടച്ച് മോരാക്കിയിട്ട് തേങ്ങയൊക്കെ കുറച്ചരച്ച് ജീരകവും അരച്ച് ഒരു മോര് കറി അല്ലെങ്കിൽ വെറും മോര് വെ കഴിക്കണം ഉച്ചക്ക് ഊണിന്റെ കൂടെ മോര് കഴിക്കുന്നത് മോരോ തൈരോ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് നമ്മുടെ ദഹനത്തെ അതു നിയന്ത്രിക്കും അത്പോലെതന്നെ സാലഡുണ്ടാക്കും സാലഡ് അതിൽ എന്തൊക്കെയാണ് ചോദിച്ചാൽ കക്കിരിക്ക ക്യാരറ്റ് തക്കാളി അതൊക്കെ അരിഞ്ഞിട്ടൊരു സബോളയും അരിഞ്ഞിട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് ഒരു നുള്ള് കുരുമുളക് പൊടിയും ഉപ്പുമിട്ട് തൈരു ഒഴിച്ച് സാലഡായി സാലഡ് കഴിക്കുന്നതും വയറിന് നല്ലത് ആരോഗ്യത്തിനും നല്ലതാണ് ഇങ്ങനെയൊക്കെ ആരോഗ്യപരമായ ഭക്ഷണങ്ങൾ ഞങ്ങൾ ഉച്ചക്കുണ്ടാക്കുന്നത് നാല് മണിയാകുമ്പം ചായയോ കാപ്പിയോ വേണ്ടിയവര്ക്ക് അതു കുറച്ച് കൊടുക്കും കുട്ടികള്ക്കാണെങ്കിൽ പാലായിരിക്കും കൊടുക്കുന്നത് ആ പാലിനകത്തു കുറച്ച് റാഗി അല്ലെങ്കില് പഞ്ഞപ്പുല്ല് അതരച്ച് അതിന്റെ പൊടിയെടുത്ത് അരച്ചത് വെള്ള വെള്ളമൊഴിച്ച് അവിടെ വെച്ച് അതിന്റെ രണ്ടു മൂന്നു പ്രാവശ്യം അതിന്റെ തെളിവെള്ളമൊഴിച്ച് ഊറ്റി അവസാനം അതിന്റെ അടിയിലുള്ള പൊടി അരിച്ചെടുത്ത് അത് കുറുക്കി ഈ പാലും ഒഴിച്ച് കുട്ടികള്ക്ക് കൊടുക്കാറുണ്ട് ഈ ചൂടുകാലത്തേറ്റവും നല്ലയൊരു പാനീയമാണ് അത് അവ പോലെതന്നെ പിള്ളേര്ക്ക് ഒരു നാല് മണിയാകുമ്പോൾ ബേക്കറിക്കു പകരം ന്നെ ഇതാണ് കൊടുക്കാറ് ബേക്കറി പലഹാരങ്ങളൊന്നും തന്നെ കൊടുക്കാതെ ഫ്രൂട്ട്സാണ് കൊടുക്കുക ഫ്രൂട്ട്സ് നല്ല ആപ്പിൾ മുന്തിരി ഒക്കെ പുറത്തു നിന്നു കൊണ്ടു വരുന്നതായതു കൊണ്ട് നന്നായിട്ട് ഉപ്പു വെള്ളത്തിലും പുളി വെള്ളത്തിലും ഇട്ട് കഴുകി അത് കഷ്ണങ്ങളാക്കി ആപ്പിളും ഓറഞ്ച് പൊളിച്ചുമൊക്കെയാണ് കുട്ടികള്ക്ക് കൊടുക്കാറ് പിന്നെ വൈകുന്നേരമാകുമ്പോൾ ഇപ്പം ഈ പ്രായം ഉള്ളവരൊക്കെയാണെങ്കിൽ അവര്ക്ക് കഞ്ഞി പയറും ചെറുപയ ർതോരന് വെച്ചതും കഞ്ഞിയും കൊടുക്കും പിള്ളേര്ക്ക് ചോറാണെങ്കിൽ ചോറിന്റെ കൂടെ പരിപ്പും എന്തെങ്കിലുമൊരു കറി പിന്നെ പപ്പടവും ഉണ്ടാകും വൈകുന്നേരം ഒരുപാട് ഹെവി ഫുഡ് കൊടുക്കാറില്ല അപ്പം പ്പവ് ഒരു കുട്ടികള്ക്ക് കഴിക്കാന് വേണ്ടി മുട്ട പൊരിച്ചതും കൊടുക്കും അങ്ങനെയാണ് വൈകുന്നേരത്തെ ഫുഡ്സ് കൊടുക്കുന്നത് ഒരിക്കലും പുറത്തു നിന്നു കിട്ടുന്ന ഒരു ഹെവി ഫുഡ്ഡും പിള്ളേരെ പ്രോത്സാഹിപ്പിക്കാറില്ല വലിയവര്ക്കും കൊടുക്കാറില്ല അതിഷ്ടമാണെന്നു പറഞ്ഞാല് തന്നെ അവരെ നമ്മൾ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പിന്നെ ഫുഡ് ഐറ്റംസിൽ ഞങ്ങൾ കിഴങ്ങ് വര്ഗ്ഗങ്ങളും ചിലപ്പോഴൊക്കെ ഉപയോഗിക്കും കപ്പ കപ്പയെന്നു പറയുന്ന സാധനം പൊളിച്ച നല്ലവണ്ണം കഴുകി നല്ല ഒരുപാട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചൂറ്റി അത് കഴിക്കുന്ന നല്ലൊരു സാനമാണ് അവ പോലെ ഞങ്ങൾ നട്ട് വളര്ത്തുന്ന ചേമ്പ് ചേന ചേന ഒക്കെ പു പുഴുങ്ങിയിട്ട് ഉപയോഗിക്കും യാതൊരു കേടുമില്ലാത്ത സാധനമാണ് ചേമ്പ് ചേന കാച്ചിൽ അതൊക്കെ പറിച്ച് കൊണ്ടു വന്ന് സേ റ്റയിലെ തൊലി കളഞ്ഞ് അടുപ്പിൽ വെച്ച് ഉപ്പുമിട്ട് ഉപ്പു ചാ തിളപ്പിച്ച് പുഴുങ്ങി ഊറ്റിയെടുത്ത് അത് വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾ കൂടി ഇരുന്ന് കഴിക്കും നല്ലയൊരു ഫുഡ് നല്ല ഫുഡ്ഡാണതൊക്കെ പിന്നെ പച്ച വാഴയ്ക്ക പുഴുങ്ങി അങ്ങനെയൊക്കെ ഞങ്ങൾ കു കുട്ടികളും വലിയവരും കഴിക്കാറുണ്ട് അ പച്ചക്കായ പുഴുങ്ങണതല്ലണ നമ്മുടെ പറമ്പിൽത്തന്നെ കൃഷി ചെയ്ത വ വാഴെ വാഴയിൽ നിന്നുള്ള പഴം അവ പോലെ നേന്ത്രപ്പഴമാണെങ്കിൽ ഞങ്ങളുടെ പറമ്പിൽ ത്തന്നെ കൃഷി ചെയ്തതാണ് ഞങ്ങളധികവും ഉപയോഗിക്കുന്നത് അത് അധികം പഴുക്കുന്നതിനു മുമ്പ് അതു പഴുക്കാത്ത പച്ചക്കായ ഷുഗര് രോഗികള്ക്കേറ്റവും നല്ലതാണ് പുഴുങ്ങി കൊടുക്കുന്നതും ഷുഗര് രോഗികളുണ്ടെങ്കില് അവര്ക്ക് ഞങ്ങളങ്ങനെ കൊടുക്കും അതേപോലെതന്നെ പഴുത്തതാണെങ്കിൽ കുട്ടികൾ കുഞ്ഞ് കുട്ടികളാകുമ്പോൾ തന്നെ അവര്ക്കു നമ്മള് ഈ പഴം അധികം പഴു പറ്റാത്ത ഇതെ നേന്ത്രക്കായ പുഴുങ്ങി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ടത് ഒരാറു മാസം ഏഴ് മാസമാകുമ്പോൾ കുഞ്ഞുങ്ങൾക്കങ്ങനെ കൊടുക്കും അവപോലെ കുഞ്ഞുങ്ങളാണെങ്കിൽ കുഞ്ഞുങ്ങള്ക്ക് ഞങ്ങൾ നുറുക്ക് ഗോതമ്പൊ കൊടുക്കും അവ പോലെ വ ഈ പച്ച വാഴയ്ക്കാ അരിഞ്ഞുണങ്ങി കുട്ടികള്ക്ക് ഞങ്ങളത് പൊടിച്ചതു കൊണ്ട് കുറുക്കുണ്ടാക്കി കൊടുക്കും അവ പോലെ ഈ റാഗി റാഗിയെന്നു പറയുന്ന ചെറിയ ഒരു വിത്താണത് റാഗി അതും പൊടിച്ച് കുറുക്കി കുട്ടികള്ക്ക് ഞങ്ങൾ കുറുക്കുണ്ടാക്കി കൊടുക്കാറുണ്ട് പിന്നെ ആരോഗ്യപരമായ രീതിയിലാണ് ആണധികവും ഭക്ഷണം ഞങ്ങൾ കഴിക്കാന് കഴിക്കാന് നോക്കുന്നത് അധികവും അങ്ങനെത്തന്നെയാണ് കഴിക്കുന്നത് എല്ലാ വിഭവങ്ങളും തന്നെ ഞാനൊരു വീട്ടമ്മയെന്നുള്ള നിലക്ക് മക്കള്ക്കും ഭര്ത്താവിനും എന്റെ പേരന്സിനും ഉണ്ടാക്കി കൊടുക്കാറുണ്ട്